ഞങ്ങള് ധ്യാനവും പ്രാണായാമം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയില് ചെയ്യുന്ന ആൾക്കാരാണ് കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാല് നമുക്കത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മള് മെയിനായിട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാല് രാവിലെയാണ് കൂടുതലായിട്ടും ഈ ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം വേറെ സമയങ്ങളിലൊക്കെ നമ്മള് യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നില്ല നമ്മളിപ്പോൾ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം എന്നു പറഞ്ഞു കഴിഞ്ഞാ ൽ അത് മോർണിംഗ് തന്നെയായിരിക്കും അപ്പോൾ മോർണിംഗ് ഒരഞ്ചുമണി ആ ടൈമിലോക്കെ നമ്മള് രാവിലെ നേരത്തെ എണീറ്റ് രാവിലെ എണീറ്റൊന്നു ഓടിയതിനു ശേഷം മാത്രം വന്ന് നമ്മള് ധ്യാനത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണമെന്താണ് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിന് അതിനനുസരിച്ച് നമുക്ക് പ്രാപ്തനാകാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം കൂടുതലായിട്ട് യോഗ അഭ്യാസങ്ങളിലൊക്കെ നല്ല രീതിയില് പങ്കുവഹിക്കുന്ന ഒന്നാണിപ്പം ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കാലൊക്കെ നല്ല രീതിയില് മടക്കി ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണുകളൊക്കെ അടച്ചിട്ട് നമ്മള് ധ്യാനത്തിലിരിക്കുക ഇപ്പോൾ പണ്ടുള്ള മുനിമാരൊക്കെ ഇരിക്കുന്ന പോലെയാണ് നമ്മള് ഇരിക്കേണ്ടത് ഇപ്പോൾ അതുവേണമെങ്കില് നമുക്ക് അങ്ങനേയും ചെയ്യാം